യോഗയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫ്ളെക്സിബിലിറ്റി അതുപോലെ നമുക്ക് മനസ്സിനുള്ളൊരു സുഖം അതായത് മനസ്സിനൊരു റിലാക്സേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മൈനായിട്ട് യോഗ ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരഭിപ്രായത്തിൽ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യോഗയിൽ പലതരം ആസനങ്ങളുണ്ട് അപ്പം ഈ ആസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽത്തന്നെ നമുക്ക് നല്ലതാണ് നമുക്ക് ഓരോ അതായത് ഓരോരുത്തർക്ക് അത ഓരോ ആസനത്തിനും ഓരോ ഗുണങ്ങളാണ് ഉള്ളത് നമുക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ആസനത്തിനെക്കുറിച്ച് മാത്രം മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പല യോഗാസനങ്ങളാണുള്ളത് അപ്പം എല്ലാമെന്നു വെച്ചുകഴിഞ്ഞാൽ എല്ലാ യോഗാസനങ്ങളും നമുക്ക് പിന്നെ ഗുണം തരുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അയവിനും അതായത് വഴക്കം വഴക്കത്തിനും ശക്തിയൊക്കെ കൂട്ടാനൊക്കെ നല്ലതാണ് നമ്മുടെ അതായത് ബോൺ ബോൺ സ്ട്രെങ്ത്ത് കൂട്ടാനൊക്കെ യോഗ നല്ലതാണ് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കാര്യങ്ങളൊക്കെ മാറ്റാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ യോഗ നല്ലതാണ്